കോഴിക്കോട് ജില്ലയില് അതായത് വളർന്ന പ്രധാന വി പിന്നെ വിളകള് അതായത് ഒരുപാട് വിളകളുണ്ട് പിന്നെന്നുവെച്ചിട്ടുണ്ടെങ്കില് പ്രാദേശിക അതായത് അരി കരിമ്പ് ഗോതമ്പ് പരുത്തി അതേപോലെ പയറുവർഗ്ഗങ്ങള് പഴങ്ങള് പുകയില പച്ചക്കറികള് ഇങ്ങനെയുള്ള ഒരുപാട് വിളകള് നമ്മുടെ ജില്ലയില് വളരുന്നുണ്ട് അതായത് നമ്മുടെ ഇതൊക്കെ നമ്മുടെ സമ്പദ്വ്യവസ്ഥയിലും പാചകരീതിലുമൊക്കെ നമുക്ക് വളരെ ഉപകാരപ്രധമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെന്നുവെച്ചിട്ടുണ്ടെങ്കില് വിത്ത് വിതയ്ക്കുന്ന മുതല് വിപണിയില് ധാന്യങ്ങൾ വിൽക്കുന്നത് വരെയുള്ള പിന്നെ അതായത് ഒരുപാട് പേര് ഇതിലൂടെ പിന്നെ അതായത് വിത്ത് വിതയ്ക്കുന്നതിലൂടെ ഒരുപാട് കർഷകര് അതെന്നുവെച്ചിട്ടുണ്ടെങ്കില് അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് ബൾക്കായിട്ട് ഹോൾസെയിൽ കടയില് കൊടുക്കും ഹോൾസെയിൽ കടകളിലെ ആൾക്കാര് റീടൈൽ കടയിൽ കൊടുക്കും റീടൈൽ കടക്കാരാണ് നമ്മുടെ കയ്യിൽ എത്തിക്കുന്നത് അങ്ങനെ ഒരുപാട് പ്രോസസ്സുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമുക്ക് അതായത് എന്താന്ന് വെച്ചാൽ ഇതിനൊക്കെന്നുവെച്ചിട്ടുണ്ടെങ്ക ല് ചിലര് അതായത് നമുക്ക് വെയിലും മഴയും ഒരേപോലെ വേണ്ട ഒരുപാട് വിളകളുണ്ട് നമുക്ക് ഏത് വിളകളാണെങ്കിലും പിന്നെ മഴയും വേണം അതായത് വെള്ളവും വേണം വെയിലും വേണം ഉണ്ടെങ്കിലേ നമുക്ക് നല്ലൊരു ഇത് പിന്നെ നമുക്ക് വിളവെടുപ്പ് നല്ല രീതിയില് നടക്കുകയുള്ളു